ഇന്നത്തെ കാലഘട്ടത്ത് കുട്ടികള് കളി എന്ന് പറയണത് തന്നെ മറന്ന് പോയിരിക്കണ ഒരു കാലഘട്ടമാണ് പണ്ടത്തെ കാലഘട്ടം നമ്മള് നോക്കണ സമയത്ത് പണ്ടത്തെ കാലത്തുള്ള കുട്ടികള് ഒരുപാട് കളികള് കളിച്ചിരുന്നു ഒഴിവു സമയങ്ങളില് ഒക്കെ അവര് വീടുകളില് കുട്ടികളുമായി ചേര്ന്ന് കളിക്കാറുണ്ട് അല്ലെങ്കില് മൈതാനത്തും മറ്റു പറമ്പുകളിലും കളിക്കാറുണ്ട് അങ്ങനെ കായികപരമായി അല്ലെങ്കില് ശാരീരികപരമായി ഒരുപാട് അധ്വാനിക്കുന്ന അല്ലെങ്കില് ശാരീരിക പരമായി ശരീരം ഒരുപാട് നന്നായി കളിച്ചും മറ്റും വിയര്ത്തും മറ്റുള്ള കുട്ടികളായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത് അങ്ങനെ സ്കൂളുകളില് ആയിക്കോട്ടെ അവര് ഒരുപാട് കളികളില് ഏര്പ്പെടുന്നു എന്നാല് ഇന്നത്തെ കാലത്തുള്ള കുട്ടികള്ക്ക് കളികളും മറ്റു കാര്യങ്ങളും കളിക്കേണ്ടത് മറന്നു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലാവരും ഒഴിവു സമയങ്ങളിലും മറ്റും ഫോണും മറ്റും ടി വിയും ഉപയോഗിച്ച് അവര് അവരുടെ സമയം ചിലവഴിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഇന്റര്നെറ്റ് അവൈലബിള് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പിന്നാലെയാണ് ഓരോ കുട്ടികളും എന്ന് വേണമെങ്കിൽ പറയാം ഒഴിവുസമയങ്ങളില് ആരെയും നമുക്ക് പുറത്ത് കാണാന് സാധിക്കില്ല എപ്പോഴും അവര് മറ്റു സാമൂഹിക മാധ്യമങ്ങളില് മാധ്യ കൂടുതലും സമയം ചിലവഴിക്കുന്നത് ലാപ്ടോപ് മൊബൈല് ടിവി അതുപോലെതന്നെ ഐപാഡ് ഒരുപാട് കാര്യങ്ങള് അവര്ക്ക് ഇപ്പോള് തന്നെ ലഭ്യമാണ് എല്ലാം അതുകൊണ്ട് കളികള് എല്ലാം മറന്നുപോയ ഒരു കാലഘട്ടമാണ്